ഹലോ എൻ്റെ പേര് അനുപ ഞാൻ എറണാകുളത്തു നിന്ന് സംസാരിക്കാണേ ഞാൻ കഴിഞ്ഞ ദിവസം നൈകയിലൊരു ബ്യൂട്ടി മേക്കപ്പ് കിറ്റ് ഓഡറ് ചെയ്തിരുന്നു അത് സാധാരണ പല വേറെ ബ്രാൻഡ് വേറെ പല പ്ലാറ്റ്ഫോമിലും ഞാനത് കാണുമ്പോൾ അതിന് ഭയങ്കര എക്സ്പെൻസീവായിരുന്നു ഒരു ആയിരം ആയിരത്തിഞ്ഞൂറു രൂപയൊക്കെ വരുന്ന ഒരു സാധനം ആയിരുന്നു അപ്പോൾ ഇത് നൈക്കയിൽ ഞാനത് ഓഫറിൽ കണ്ടപ്പോൾ ഞാനത് ഓർഡർ ചെയ്തു പക്ഷേ ഓർഡർ ചെയ്യുമ്പോഴും എനിക്കൊട്ടും ധൈര്യമില്ലായിരുന്നു കാരണം ഇത്രയും വലിയ വിലയുടെ സാധനം ഭയങ്കര വിലക്കുറവിലാണ് നൈക്കയിൽ അത് കണ്ടത് അപ്പോൾ വരുമ്പോൾ സാധനം മിക്കവാറും ക്വാളിറ്റി കുറഞ്ഞ വല്ല സാധനം ആയിരിക്കും അവർ ഇടാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത്രയും കുറച്ച് വിലയിൽ അവർക്ക് ഓഫറിൽ ഇടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ കരുതി ഞാൻ ഓർഡർ ചെയ്തു പക്ഷേ സാധനം എനിക്ക് കയ്യിൽ കിട്ടി വലിയ താമസങ്ങൾ ഒന്നുമില്ലായിരുന്നു വരാനായിട്ട് സാധനം കിട്ടിയതും വളരെ നല്ല ക്വാളിറ്റി മെയിൻ കാര്യം പറയേണ്ടത് അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര നല്ലതായിരുന്നു ആ ഒരു വിലയാണെങ്കിലും നമുക്ക് ഭയങ്കര സർപ്രൈസിങ് വിലയായിരുന്നു വളരെ വിലക്കുറവായിരുന്നു അത് പിന്നെ അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും വളരെ നല്ല കൺസിസ്റ്റൻസിയും നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ആണെങ്കിലും വളരെ സ്മൂത്തും നമ്മൾ ശരിക്കും വളരെ നല്ല വില കൂടിയ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് എനിക്കത് തോന്നുന്ന വ്യത്യാസമൊന്നുല്ല ഡ്യൂപ്ലിക്കേഷന് ഒന്നുമില്ല സെയിം സാധനം തന്നെയാണ് എനിക്ക് കയ്യിൽ കിട്ടിയത് എന്ന് തോന്നുന്നു പക്ഷേ അത് വളരെ ഇതാ ക്വാളിറ്റി വളരെ നല്ലതാണ് അതിൻ്റെ ഈവൻ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പോലും അപ്ലൈ ചെയ്യാനായിട്ട് ഒരു പ്രോബ്ലവുമില്ല എന്തായാലും അതിൻ്റെ വിലയും ഇത്രയും കുറവ് സാധനവും നമുക്ക് വലിയ താമസൊന്നുമില്ലാതെ ഡെലിവേടായിരുന്നു പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും വളരെ നല്ലത് കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമാണ് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഇത് റെക്കമെൻ്റെ ചെയ്യുന്നു ഈയൊരു ഐറ്റം എന്നുവരെ ഓഫർ ഉണ്ടന്നെനിക്കറിയില്ല പക്ഷേ ഓഫറിൽ അത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ ഹൈലി റെക്കമെൻ്റെ ചെയ്യുന്നൊരു സാധനവാണേ താങ്ക് യൂ